ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ബൂത്ത് ടാ ടാപ്പ് വെള്ളവുണ്ട് കിണർ വെള്ളം ലഭിക്കുന്നുണ്ട് അങ്ങനെ തന്നെ അതാത് രണ്ട് രീതീലുള്ള വെള്ളം കിട്ടുന്ന സംവിധാനം എൻ്റെ വീട്ടിലുണ്ട് അത് കൊണ്ട് ഇപ്പം രണ്ടുവെനിക്ക് കിട്ടാറുണ്ട് പിന്നെ ടാപ്പ് വെള്ളം വന്നപ്പോഴുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ ആദ്യം എനിക്ക് കിണർ വെള്ളമായിരുന്നു നൽ ലഭിച്ചിരുന്നത് പിന്നീടാണ് ടാപ്പ് വെള്ളം വന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചില സിറ്റ്വേഷൻ വരുവാണ് അതായതിപ്പം കിണർ വെള്ളം നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ നമുക്ക് വരുവല്ലൊ ഇടക്ക് ചില സമയത്ത് നമുക്കിപ്പോൾ കിണർ വെള്ളം തീരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കമ്പ്ളീറ്റ്ലി ഈ ടാപ്പ് വെള്ളത്തിലാശ്രയിച്ചിരിക്കേണ്ടിവരും അപ്പം അങ്ങനൊരു സിറ്റ്വേഷനിലൊക്കെ ടാപ് വെള്ളം ഭയങ്കര അഡ്വാൻടേജ് തന്നെയാണ് തരുന്നത് പിന്നെ ലഭിക്കുന്ന വെള്ളം ശുദ്ധമാണോ ചോദിച്ചാൽ അല്ല കാരണം എന്താന്ന് വെച്ചാൽ കിണർ വെള്ളത്തിൻ്റെ അവിടുന്ന് കിട്ടുന്ന ആ ഒരു ശുദ്ധമായ വെള്ളം നമുക്കൊരിക്കലും വേറൊരു താരത്തിലുള്ള ഇതൊന്നും കിട്ടീന്ന് വരില്ല പ്രത്യേകിച്ച് ടാപ്പ് വെള്ളത്തീന്ന് കിട്ടണ വെള്ളം നമുക്ക് ശുദ്ധമായതെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഏൻ്റെ വീട്ടിലാണെങ്കിലും പാത്രം കഴുകാമ്പോലും നമ്മൾ ചിലപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രേ ടാപ്പ് വെള്ളത്തിനക്കെ ആശ്രയിക്കാറുള്ളു അല്ലെങ്കിൽ നമ്മൾ കിണർ വെള്ളം തന്നെയാണ് ആശ്രയിക്കാറ് പിന്നെയീ ചെടി നനയ്ക്കണ ചെടി നനയ്ക്കുമ്പോഴൊക്കെ നമ്മൾ കിണർ വെള്ളമല്ലാതെ ടാപ്പ് വെള്ളം കൊണ്ടാണ് ചെടിനനയ്ക്കാറ് അല്ലാതപ്പഴൊന്നും നമ്മൾ കിണർ വെള്ളം യൂസ്സ് ചെയ്യാറില്ല പിന്നെ എൻ്റെ വീട്ടിൽ വെള്ളമൊക്കെ വെയ്ക്കുമ്പോൾ ഇപ്പം കിണർ വെള്ളം എടുക്കയാണെന്നുണ്ടെങ്കിൽ അത് കുടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് പിടിച്ച് വെയ്ക്കാനൊക്കെ പിടിച്ച് വെയ്ക്കാറൊക്കെയുണ്ട് പക്ഷേ അതേ സ്ഥാനത്ത് ടാപ്പ് വെള്ളത്തിന്നാണ് ഇപ്പം നമുക്കൊരു സിറ്റുവേഷൻ വരുവാണ് ടാപ്പ് വെള്ളത്തിൽത്തെ വെള്ളം കുടിക്കണംന്ന് വര്വാച്ചാ നമ്മളാദ്യം അത് പിടിച്ച് വെച്ചിട്ട് തിളപ്പിച്ചിട്ടക്കയാത് കുടിക്കുള്ളു കാരണം അത്രേം അത്രേം അതയത് കിണർ വെള്ളത്തിന്ന് വെള്ളം കുടിക്കണ അത്രേം സേഫ്റ്റീൽ നമുക്ക് ടാപ്പ് വെള്ളത്തിന്ന് വെള്ളം കുടിക്കാൻ പറ്റില്ല